ഹലോ ആ ഹോട്ടൽ വൈറ്റ് സാൻഡ് അല്ലേ ഞാൻ ഒരു ഫുഡ് ഓഡർ ചെയ്യാൻ വിളിച്ചതാണേ ആ നമുക്കൊരു പത്ത് പൊറോട്ടയും ഒരു പതിനഞ്ച് ചപ്പാത്തിയും ഒരു ഫുള്ള് അൽഫാം ആ അൽഫാം പെരി പെരി ആ ഒരു ചിക്കൻ ചില്ലിയും ഇത്രയും സാധനം വേണം ആ ഇതിവിടെ ഒറ്റപ്പാലത്തേയ്ക്കാണേ ആ ഇതിപ്പോൾ ഡെലിവറി ആകാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ അപ്പോൾ അവിടുന്നു ഇത്രയും നേരം ട്രാവൽ ചെയ്യണ്ടേ അപ്പോൾ ഈ സമയത്തിനുള്ളിൽ ഈ ഫുഡ് ചൂടാറും ചൂടാറുകയെന്ന് പറഞ്ഞാൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ചൂടാറാത്ത ഏതെങ്കിലും പാത്രത്തിൽ കൊടുത്തു വിടാൻ പറ്റുമോ അപ്പോൾ വല്ല കണ്ടെയ്നറുകളോ അല്ലെങ്കിൽ ചൂടാറാത്ത പാത്രങ്ങളുണ്ടല്ലോ ഇൻസുലേറ്റർ ബാഗുകളോ അങ്ങനെ എന്തെങ്കിലും ആ കാസ്റോൾ പോലത്തെ അങ്ങനത്തെ ഏതിലേലൊക്കെ കൊടുത്തു വിടാൻ പറ്റുവോ ചൂടാറാത്ത പോലെ ആ അങ്ങനത്തെ കൊടുത്തു വിട്ടാൽ മതി ആ അര മണിക്കൂറല്ലേ ആ അര മണിക്കൂറിനുള്ളിൽ ചിലപ്പോൾ ചൂടാറുമല്ലോ അപ്പോൾ അങ്ങനത്തെ പാത്രത്തിൽ കൊടുത്തു വിട്ടാൽ നന്നായിരുന്നു ചൂടാറാത്ത പാത്രത്തിൽ ആ ശരി